ആറുമാസത്തേയ്ക്ക് മുലപ്പാല് കൊടുക്കണമെന്നുള്ളതാണ് നമ്മുടെ ഒരു അറിവ് ഓരോരുത്തരുടെ എല്ലാ അമ്മമാർക്കും മുലപ്പാല് ലഭ്യമാകണമെന്നില്ല അങ്ങനെയുള്ളവർക്ക് ലാക്ടോജൻ എന്നുപറയുന്നതാണ് കുടുതലും കൊടുക്കുന്നത് കണ്ടിട്ടുള്ളതങ്ങനെയാണ് ആറുമാസത്തേയ്ക്ക് അവർക്ക് മുലപ്പാലാണ് ഏറ്റവും അവൈലബിൾ അഭികാമ്യം അല്ലെന്ന് ഉണ്ടെങ്കിൽ ഈ ലാക്ടോജൻ പോലത്തെ മിൽക്ക് പൗഡറ് കലക്കി ചെറിയ ചൂടുവെള്ളത്തിൽ കലക്കിയെടുത്ത് കൊടുക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത് അത്

അങ്ങനെ നമുക്ക് പോഷകസമൃദ്ധമായിട്ടുള്ള ചെറുപയറ് കഞ്ഞി ചെറുപയറുകഞ്ഞി അതൊക്കെ നമ്മള് കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് ഉടച്ച് നന്നായിട്ട് വേവിച്ച് ഉടച്ച് പിള്ളേർക്ക് പിള്ളേർക്ക് കൊടുക്കാം അതുപോലെ തന്നെ പച്ചച്ചക്കറികള് വേവിച്ചിട്ട് വേവിച്ചിട്ട് ഞെരടിയാണ് പിള്ളേർക്ക് കൊടുക്കുന്നത് അവരുടെ വായിൽ പല്ലുവരുന്ന സമയം വരെയും അവർക്ക് നല്ലരീതിയിൽ വേവിച്ച് ഉടച്ച് വേണം കൊടുക്കാൻവേണ്ടിയിട്ട് കുറുക്കുകള് കുറുക്ക് പഞ്ഞപ്പുല്ലിൻറെ കുറുക്കാകാം അതുപോലെ തന്നെ കുറുക്ക് പായസം അങ്ങനെയുള്ള ഒരു വാഴക്കാപൊടി കുറുക്കുകള് അങ്ങനെയുള്ള പ്രോട്ടീൻ അടങ്ങിയതും വിറ്റമിൻസും മിനറൽസും ഒക്കെ പിള്ളേർക്ക് കിട്ടാൻവേണ്ടിയിട്ടുള്ള ഭക്ഷണ സാധനങ്ങള് നമ്മള് കൊടുത്ത് ആദ്യത്തെ ഒരു ഒരു വർഷം ആറുമാസം മുലപ്പാലുതന്നെ അതിനുശഷംമാണ് ഇങ്ങനെയുള്ള ഭക്ഷണസാധനങ്ങള് നമ്മള് കഴിക്കുന്നതുപോലെ തന്നെ ചെറിയരീതിയിൽ എരിവ് കുറച്ചും ചെറിയ രീതിയിലവർക്ക് നന്നായിട്ട് വേവിച്ച് ഭക്ഷണസാധനങ്ങള് കൊടുക്കാം